നമ്മുടെ പ്രാദേശികമായ കമ്പോളത്തിൽ കാർഷിക ഉത്പന്നങ്ങൾ ഒക്കെ എത്തിക്കാൻ ആൾക്കാർ ചില ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കർഷകർക്ക് അവർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കാർഷിക ഉത്പ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി ഒരു മാർക്കറ്റ് ഉണ്ടാകണം അപ്പം ആ മാർക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അത് വിൽപ്പന നടത്താൻ പറ്റില്ല അതുപോലെ തന്നെ ആ മാർക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ തന്നെ അവിടെ സാധനങ്ങൾ എത്തിക്കണം ഇപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ നല്ല പൈസയും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ദൂരസ്ഥലങ്ങളിൽ ഇപ്പോൾ ഇഞ്ചി ഇഞ്ചിയൊക്കെ കൃഷി ചെയ്ത് ഉത്പ്പന്നം അത് നമുക്ക് വേറെ വേറെ ജില്ലകളിൽ ഒക്കെ ആയിരിക്കും കൊണ്ടു പോയി ഇറക്കേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പോർട്ട് സൗകര്യം ഉണ്ടായിരിക്കണം അതുപോലെ വാഹനങ്ങളും ഉണ്ടായിരിക്കണം ഇപ്പം നമുക്ക് കൂടുതൽ അളവ് കൂടുതലുള്ള ഉത്പന്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് വേറെ ജില്ലകളിലേക്ക് എത്തിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കർഷകർക്ക് അത് പിന്നെ വലിയ ലോറികളിൽ ഒക്കെ കയറ്റി അത് വേറെ ഒരു സ്ഥലങ്ങളിൽ ഒക്കെ എത്തിക്കുമ്പോൾ ഒരുപാട് പൈസ ചിലവ് വരും അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനു അഭിമുഖീകരിക്കുന്നുണ്ട് ഇത്തരം കർഷകർ